ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് അതായത് ഞാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊറോണ സമയത്താണ് മൈനായിട്ട് ഗെയ്മൊക്കെ കളിക്കാൻ തന്നെ തുടങ്ങിയത് ആദ്യം വലിയൊരു ഇൻട്രസ്റ്റോടെ കളിച്ച കാര്യമല്ല പിന്നെ നമ്മൾ വെറുതെയിരുന്ന് വെറുതെയിരുന്ന് ബോറടിച്ചപ്പോഴാണ് ഞാൻ പബ് ജി എന്നു പറഞ്ഞൊരു ഗെയിം പബ് ജി ഫ്രീ ഫയറും കയറ്റിയിട്ടുണ്ടായിരുന്നു ഫ്രീ ഫയർ എനിക്ക് വലിയ പിടുത്തമില്ലാത്തതു കൊണ്ട് ഞാൻ പബ് ജിയാണ് കളിച്ചു കൊണ്ടിരുന്നത് ആദ്യമൊക്കെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നെറ്റൊക്കെ ഇരുന്ന് നല്ലവണ്ണം കളിക്കുമായിരുന്നു അപ്പം നല്ല അടിപൊളിയൊരു ഗെയിം തന്നെയായിരുന്നു നമുക്ക് സമയം ചിലവഴിക്കാൻ നമുക്ക് സമയം പോകുന്നത് പോലും അറിയില്ല നമുക്ക് വിശപ്പ് പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു ഗെയിമാണ് പബ് ജിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പബ് ജി പിന്നെ നമുക്ക് നല്ല രീതിയിൽ അതായത് പിന്നെ ഞാൻ പിന്നെയെന്നുവെച്ചിട്ടുണ്ടേ പിന്നെ അത് കഴിഞ്ഞ് നല്ലവണ്ണം കളിക്കാൻ തുടങ്ങിയപ്പോളാണ് ഞാൻ പബ് ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തുടങ്ങിയത് അപ്പം അതു കൊണ്ടുതന്നെ അങ്ങനെ പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊരു ഗെയിമിൽ പങ്കാളിയാകാൻ പറ്റുമെന്നോ അങ്ങനെ ഒരു ഇതും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരനുഭവം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു